ഇപ്പോൾ കേരളത്തിലെ പ്രധാന ബിസിനസ്സ് ട്രെൻഡുകൾ ഒന്നായിരുന്നു ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ ഓൺലൈനിലൂടെ സാധനങ്ങൾ വിൽക്കുക അതിലൂടെ കാശ് നേടുക എന്നുള്ളത് സാമ്പത്തിക സ്പെഷ്യലൈസേഷൻ മേഖലകളും ആഗോളവൽക്കരണം കാരണം ആഗോളവൽക്കരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും പുറത്തിറങ്ങാതെ ഓൺലൈനിൽ കൂടിയാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അത് കാരണം വളരെ പ്രതികൂലമായാണ് നാട്ടിലെ ചെറിയ ചെറിയ കച്ചവടക്കാരൻ ബുദ്ധിമുട്ട് നേരിടുകയാണ് അതുകൊണ്ട് വലിയ വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വാങ്ങുന്ന ആൾക്കാർ ആണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലും ഇത് തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ചെറിയ ചെറിയ കച്ചവടക്കാർ വളരെ കഷ്ടത്തിലാകും